ഈ മൺപാത്ര നിർമ്മാണമാണ് ഒരു കലാരൂപമായിട്ട് ഉപയോഗിച്ചു അത് ഈ വിനോദസഞ്ചാരികൾക്ക് എന്ന പറയുക ഭയങ്കര ആകർഷണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കളിമണ്ണ് കൊണ്ട് ഈ സാധനം ഉണ്ടാക്കുന്നത് ഓരോരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ അവർക്ക് നല്ല രീതിക്ക് അപ്പം ഒരു ആകർഷകം നേരുന്നുണ്ട് അതാണ് ഈ അതേപോലെ മൺപാത്രങ്ങള് ഉണ്ടാക്കുമ്പോൾ അപ്പം അതിങ്ങനെ ഓരോരുത്തരും അവരുടെ ജീവിതോപാധി ഉപാ ഉപാത ഉപാഗ മാർഗം ആയിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഉണ്ട് പക്ഷേ ഇത് ഒര് കലാരൂപമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കലാരൂപമായിട്ട് വികസിപ്പിച്ചിട്ടില്ല പക്ഷെ ഇന്നും ഒരുപാട് പേർക്കിന്നറിയാം ഇത് ഒരു ആകർഷണം വിനോദ സഞ്ചാരികൾക്ക് ഒരു ആകർഷ ആകർഷകമായ ഒര് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ മൺപാത്ര നിർമ്മാണം ചെയ്യുക നമ്മൾ ഈ കളിമണ്ണ് കൊണ്ട് കുഴച്ച കളിമണ്ണ് കൊണ്ടാണ് നമ്മൾ ഈ നല്ല ഭംഗിയുടെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അതിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് ഇത് എങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരിതാണ് ഒര് നല്ല കഴിവ് കഴിവും അതുപോലെ അത് ചെയ്യാനുള്ള ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മാത്രമേ അത് അങ്ങനെ ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റുള്ളു വിനോദ വിനോദസഞ്ചാരികൾക്ക് അതൊരു ആകർഷകമായ ഒരു കാര്യം തന്നെയാണ് അത്